സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രിയപ്പെട്ട വിഷയം മാക്സും ഫിസിക്സും ആയിരുന്നു മാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും നല്ല ഇഷ്ട്ടമുള്ള വിഷയമാണ് എനിക്ക് ബാക്കിയുള്ള കുട്ടികളെ അപേക്ഷിച്ച് നോക്കുവാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് മാക്സ് ഭയങ്കര ടഫായിരുന്നു എന്താണ് നിശേഷം എനിക്ക് എളുപ്പമായിട്ടാണ് ഞാന് തോന്നിയിരിക്കുന്നത് എല്ലാ വിഷയങ്ങളും പോലെ അല്ലെങ്കിൽ കുറച്ചുംകൂടെ എനിക്ക് മാക്സ് ഇപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ എന്താ പറയുക വേറെ വിഷയങ്ങള് ഇപ്പോൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എളുപ്പം ആയിരിക്കും ഇപ്പോൾ ഹിസ്റ്ററി അങ്ങനത്തെ കാണാപാഠം പഠിക്കേണ്ട വിഷയങ്ങള് എനിക്ക് ടഫാണ് കാരണം കാണാപാഠം പഠിക്കാനായിട്ട് അങ്ങനെ വലിയ താല്പര്യമില്ല പക്ഷെ മാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ച് സ്വയം ചെയ്യേണ്ട ഇതായത് കൊണ്ട് പിന്നെ എന്താ പറയുക മാക്സ് ചെയ്യാൻ ഇന്ന ഒരു വഴികൂടെ ചെയ്യാൻ പാടുളളു എന്നൊരിതില്ല നമുക്ക് ഏത് വഴിയിൽ കൂടെ പോയാലും ആൻസർ കിട്ടിയാൽ മതി അതാണ് മാക്സിൻ്റെ പ്രത്യേകത അപ്പോൾ മാക്സ് പഠിക്കാനും അതായത് ഇപ്പോൾ ഒരു ഒരു കൊസ്റ്റിയൻ ചെയ്ത അടുത്ത കൊസ്റ്റിയന് വേറെ വഴിയായിരിക്കും അപ്പോൾ അത് ചെയ്ത് ചെയ്ത് തന്നെയാണ് പഠിക്കേണ്ടത് അപ്പോൾ അങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കും ബാക്കിയുള്ളവർക്ക് അതിനെ ഇഷ്ടം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് പക്ഷെ ഞാന് എന്താ പറയുക അത് എന്താ അതിൻ്റെ ബേസിക്സാണ് പഠിക്കാറ് മാക്സിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ഒരേപോലെ ആയിരിക്കും അതിന് ബേസിക് ആയിട്ടുള്ള ഇക്വെഷൻ എല്ലാത്തിനും ഉണ്ടായിരിക്കും ആ ഇക്വെഷൻ പഠിച്ച് കഴിഞ്ഞ ആ പിന്നെ കൊസ്റ്റിയൻസ് ഒക്കെ അതിൻ്റെ രീതിയിലേക്ക് അല്ലെങ്കിൽ അതിനോട് അനുബന്ധപെട്ട രീതിയിൽ വരുന്ന കൊസ്റ്റിയൻസായിരിക്കും അത് നമുക്ക് ചെയ്യാൻ എളുപ്പം ഉണ്ടാകും പിന്നെ കൂടുതലും ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാവില്ല അതേപോലെ പക്ഷെ അത് കറക്റ്റായിട്ട് ഒന്നോ രണ്ടോ കൊസ്റ്റിയൻ ചെയ്ത് തന്നെ പഠിക്കണം കാണാപാഠം പഠിക്കാൻ പറ്റില്ല മാക്സ് മാക്സ് ചെയ്ത് ചെയ്ത് പഠിച്ചാൽ തന്നെയാണ് എന്താ പറയുക കൂടുതലായിട്ട് നമുക്ക് അതിനെ കുറിച്ച് അറിയാനും അതിലേക്ക് ഇറങ്ങി ചെയ്യാൻ വേറെ കൊസ്റ്റിയൻസ് വന്നാലും ചെയ്യാനും പറ്റുള്ളൂ പിന്നെ മാക്സിനെ എല്ലാർക്കും പേടിയാണ് എനിക്ക് ആ പേടിയില്ല അപ്പോൾ അത് കൊണ്ട്തന്നെ കൃത്യമായിട്ട് ചെയ്യാനും പറ്റും മാക്സ് വന്ന് കഴിഞ്ഞാൽ ടഫായിരിക്കോ എന്ന് ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അങ്ങനത്തെ പേടിയും കാര്യങ്ങളും ഇല്ലാത്തോണ്ട് ചെയ്യാനും കിട്ടുന്നുണ്ട് പിന്നെ അത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് മാക്സ് ഭയങ്കര ഇഷ്ടമാണ്